എൻ്റെ വീട് കോട്ടയത്താണ് അപ്പം കോട്ടയം ജില്ലയിലുള്ള ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് വൈക്കം ആണ് വൈക്കത്ത് വൈക്കത്തെ അമ്പലം വൈക്കം സത്യാഗ്രഹം നടന്നതാണ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം

അപ്പോൾ അവിടെ താഴ്ന്ന ജാതിക്കാർക്കും ഈഴവർക്ക് ഉൾപ്പെടെ ഉള്ള മറ്റെല്ലാ താഴ്ന്ന ജാതിക്കാർക്കും അവിടെ പ്രവേശനം ലഭിക്കണം അവർക്കും പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ പുറത്തായിരുന്നു ആ സത്യാഗ്രഹം നടന്നത് സത്യാഗ്രഹം മാത്രമായിരുന്നു അതായത് അത് മറ്റുള്ള കോലാഹലങ്ങളിലേക്കോ കലഹങ്ങളിലേക്കോ ഒന്നും പോയില്ല ഒരു സമാധാനപരമായി ഒരു സത്യാഗ്രഹമായിരുന്നു നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് അത് തുടങ്ങിയത് മാർച്ചിലാണത് തുടങ്ങിയത് പിന്നെ അത് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നവംബറോടു കൂടിയൊക്കെയാണ് ആ ഒരു സമയത്ത് മഹാത്മാഗാന്ധി ഒക്കെ വൈക്കത്ത് എത്തിയിരുന്നു മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഇടപെടലും കൊണ്ടും കൂടെയൊക്കെ ആണ് പല നല്ല തീരുമാനങ്ങളും അവിടെ ഉണ്ടായത് വൈക്കത്തെ അമ്പലത്തിൽ മാത്രമല്ല അമ്പലത്തിനോട് ചുറ്റും കിടക്കുന്ന റോഡിൽ പോലും താഴ്ന്ന ജാതിയെന്ന മുദ്രകുത്തപ്പെട്ടിരുന്നവരെ കയറ്റിയിരുന്നില്ല അപ്പോൾ ഇരുപത്തി അഞ്ചിൽ സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ അമ്പലത്തിലേക്ക് എല്ലാ മതക്കാർക്കുമുള്ള പ്രവേശനം അതോടുൾപ്പെടെ അതി അതിനോടൊപ്പം തന്നെ ആ വഴിയിൽ കൂടെ എല്ലാ ജാതിക്കാർക്കും പോകാനുള്ള ഒരു പ്രവേശന അനുമതിയും എല്ലാം ലഭിച്ചിരുന്നു ഇതിന് നേതൃത്വം നൽകിയ വലിയ ഒരാളെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ടി കെ മാധവൻ എന്ന് പറയുന്ന ആളാണ് ആളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സത്യാഗ്രഹങ്ങളുമൊക്കെ നടന്നത് അപ്പം ഞാൻ അവിടെ ഇതാണ് ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാനാ അമ്പലത്തിൻ്റെ വഴികളിൽ കൂടെ പോയിട്ടുണ്ട് അമ്പലത്തിനോട് അടുത്ത് കിടക്കുന്ന വഴികളിൽ കൂടെയെല്ലാം ഞാൻ പലതവണ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ അമ്പലത്തിനുള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല കയറാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല അതിനുള്ളൊരു സാഹചര്യവും ഒത്തു വന്നിട്ടില്ല എനിക്ക് കേറാ അമ്പലത്തില് സന്ദർശിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആഗ്രഹമുണ്ട് എന്നെങ്കിലും നടക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു